എനിക്ക് ജോലിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ടീച്ചർ ആവണമെന്ന് വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാം എന്താണ് പറയുക ടീച്ചർ ആവാൻ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്നവളായ ഒരാളായിരുന്നു ഞാൻ എല്ലാം അന്വേഷിക്കും പുസ്തകം വായിക്കും കേട്ടോ നന്നായിട്ട് പുസ്തകം വായിക്കും പുസ്തകം വായന വളരെ ഇഷ്ടമാണ് പിന്നെ മലയാളം ടീച്ചർ ഒക്കെ ആവണം എന്നാണ് എൻ്റെ ഒരേ ആഗ്രഹം കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊക്കെ വിവരിച്ച് കൊടുക്കുക അവരുടെ പാഠമായി ബന്ധപ്പെട്ട് ചുറ്റുമുള്ളതൊക്കെ ഇണങ്ങി മിക്സ് ആക്കിയിട്ട് വിവരിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അങ്ങനെ ഒക്കെ വിവരിക്കാനായിരുന്നു ആ സമയത്തിഷ്ടം പക്ഷേ പ്ലസ് ടു കഴിഞ്ഞതോടെ എന്തായി അതൊ പ് അതിന് പോവാതെ ആയി പ്ലസ് ടു കഴിഞ്ഞിട്ട് ടി ടി സി ചെയ്യണമെന്നൊക്കെ നല്ല താല്പര്യമുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ടീച്ചർ ആവാനുള്ള ആഗ്രഹം അവിടുത്തേക്ക് കളഞ്ഞിരിക്കുകയാണ് ഞാൻ ഇപ്പോഴാണെങ്കിൽ ഒരു ടെലികോളർ ആയിട്ട് എനിക്ക് ജോലി ഉണ്ട് ആ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ജോലി ആണ് ടെലികോളർ ആയിട്ട് പക്ഷേ നല്ലവണ്ണം വെയിറ്റ് ഒന്നും എടുക്കാത്ത ജോലി ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല രാവിലെ നേരത്തെ വരിക ടെലികോളിങ് ചെയ്യുക സംസാരിക്കുന്നവരുടെ പരാതിയും പരിഭവവും എന്തൊക്കെ പറയുന്നത് അവർ പറയുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നല്ലൊരു ജോലിയാണ് ചിലർ ചീത്ത ഒക്കെ പറയും കേട്ടോ പക്ഷേ ചീത്ത പറയുന്നവരെ നമുക്കൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ടെലികോളിങ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം പിന്നെ പോസിറ്റീവ് ആയിട്ട് മിണ്ടുന്ന ചേച്ചിമാർ ചേട്ടന്മാരൊക്കെ കുറേ ഉണ്ട് അവരുടെ രീതികളും അവരുടെ എങ്ങനെയാണ് അവർ അവർ ജീവിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ സങ്കടമൊക്കെ തോന്നും പക്ഷേ നമ്മുടെ കരിയറിൻ്റെ ഭാഗ കരിയറിൽ ചിന്തിച്ചാൽ അവർ അവർ പറയുന്നത് നമ്മൾ കേൾക്കാൻ പാടില്ല അതൊക്കെ നമ്മൾ കേട്ട് നിന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്താണോ ടെലികോളിങ് ചെയ്യാൻ തന്ന ടാസ്ക് അത് നമ്മൾ ചെയ്ത് തീർത്തേ പറ്റൂ അതവർക്ക് സങ്കടമായാലും സന്തോഷമായാലും അത് നമ്മൾ ചെയ്തു തീർത്തേ പറ്റൂ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊന്നുമല്ല ഒരു കരിയറിൽ എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ് ഞാൻ ജോലിക്ക് കയറുന്നത് തന്നെ വീ ഇപ്പോഴാണ് ജോലിക്ക് കയറുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസമായിട്ടുണ്ടാവും ഞാൻ ജോലിക്ക് കയറിയിട്ട് ജോലിക്ക് കയറിയതിന് ശേഷം എന്താണ് പറയുക ആദ്യത്തെ സാലറി വന്നു സാലറി വന്ന ദിവസമുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് നമ്മുടെ സ്വന്തം നമ്മുടെ കഴിവ് കൊണ്ട് നമ്മൾ എടുത്ത ജോലി അതിനൊരു സാലറി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമാണ് കേട്ടോ എല്ലാ സ്ത്രീകളും അവരുടെ അവരുടേതായ ജോലികൾ ചെയ്യണം വീട്ടിലിരിക്കാതെ അവർ അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികളായാലും വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോലി ആയാലും അത് ഒരു നമ്മുടെ കൈയ്യിലൊരു തുക കിട്ടുന്നത് പോലെയുള്ള ഒരു ജോലി നമ്മൾ എന്തായാലും ചെയ്യണം സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് എല്ലാ സ്ത്രീകൾക്കും അവരുടേതായ ജോലി ഉണ്ടാവണം അവരുടേതായ ഒരു ഭാവി ഉണ്ടാവണം എന്നാണ് എൻ്റെയും ആഗ്രഹം എനിക്ക് ടീച്ചർ ആവാനുള്ള ആഗ്രഹം നല്ലവണ്ണം ഉണ്ടായിട്ടുണ്ടായി പക്ഷേ അതിന് പോവാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്ക് ടീച്ചർ ആവണം കുട്ടികളെ പഠിപ്പിക്കണം ഞാൻ ട്യൂഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായി ആ സമയത്തൊക്കെ പൈസ കിട്ടിയിട്ടുണ്ടായി അതൊക്കെ ഈ ഒരു സാലറി പോലെ ആയിട്ടില്ല അതെന്ന് പറഞ്ഞാൽ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഫീസ് നൂറ് രൂപ അങ്ങനെയാണ് എനിക്ക് തന്നത് ഒരു മാസം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ ഡിഗ്രിക്ക് പോവുന്ന സമയത്താണ് വീട്ടിൽ ഒരഞ്ച് കുട്ടികളൊക്കെ ട്യൂഷൻ എടുക്കാൻ തുടങ്ങിയത് അതിൽ എൽ കെ ജി മുതൽ ടെൻത് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് മിണ്ടുമ്പോളും ഇതാക്കുമൊക്കെ ടീ ഒരു ടീച്ചറുടെ ഫീൽ എന്താണെന്ന് ഞാനതിൽ ആസ്വദിച്ചിട്ടുണ്ട് കുട്ടികൾ നമ്മളെ ടീച്ചറേ എന്ന് വിളിക്കുകയും വീട്ടിലിരുന്നാലും നമുക്കൊരു ടീച്ചറേ എന്നുള്ള വിളിയൊക്കെ കേൾക്കുമ്പോളുള്ള ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ തന്നെയാണ് പിന്നെ ഇപ്പം ചെയ്യുന്ന ടെലികോളിങ് എന്ന് പറഞ്ഞാൽ ആസ് എ ടെലികോളർ ഐ ആം സോ ഹാപ്പി ബട്ട് എന്താണ് പറയുക നമ്മൾ ഒരാളോട് ഫോൺ വിളിച്ചിട്ട് മിണ്ടുമ്പോൾ അവരവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് കേട്ടോ ഞാനിതൊക്കെ വീട്ടിൽ പോയിട്ട് ഷെയർ ഒക്കെ ചെയ്യും എൻ്റെ കരിയറിൽ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ആസ് എ ടെലികോളർ ഈസ് കണ്ടിന്യൂ ചെയ്ത് പോവണം എന്നാണ് ദിസ് ജോബ് ഈസ് കണ്ടിന്യൂ എന്നൊക്കെ പറഞ്ഞത് ഈ ജോബ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ എത്ര വരെ ഈ ഈ ജോലിയിൽ ഞാനിരിക്കുമെന്നെനിക്കറിയില്ല ഇരിക്കുന്നിടത്തോളം സ സത്യസന്ധമായിട്ട് ജോലി ചെയ്യും എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ ഒരാൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ സത്യമായിട്ട് ചെയ്യണം ഒരു സത്യസന്ധമായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരിത് സാലറി വെച്ച് നോക്കുകയാണെങ്കിൽ കരിയറിൻറെ നല്ല സാലറി ആണ് ടെലികോളറിന് കിട്ടുന്ന സാദാ ഒരു സാലറി എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പം ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ് സന്തോഷവുമാണ് പക്ഷേ വിഷമം ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടീച്ചർ ആവാത്ത ആവാൻ പറ്റാത്തതിലൊരു വിഷമമുണ്ട് സ് എനിക്കൊരു ടീച്ചർ ആവണം എന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ടീച്ചർ ആയിട്ടില്ലെങ്കിലും മിണ്ടുന്നത് പോലെ ഒക്കെത്തന്നെയാണ് ഇപ്പോൾ എന്താണ് പറയുക ടെലികോളർ ആസ് എ ടെലികോളർ ഞാനിപ്പോൾ മിണ്ടുന്നുണ്ടല്ലൊ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിൽ സംസാരിക്കുന്നുണ്ടെന്നല്ല ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നല്ല ആസ് എ ഫോൺ വിളിക്കുമ്പോൾ ഞാനെങ്ങനെയാണ് സംസാരിക്കുന്നത് വെച്ചാൽ അവർക്ക് വ്യക്തമാകുന്ന രീതിയിലും കരിയറിൻ്റെ ഭാഗത്ത് ആസ് എ പ്രൊഫഷണലി നോക്കിയാൽ നല്ല രീതിയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട് കരിയറിനോട് എനിക്ക് വളരെ താല്പര്യമുണ്ടിപ്പം നല്ലൊരു കരിയർ ആണ് എനിക്കിപ്പം ലഭിച്ചത് തുടർന്നും ഈ കരിയർ മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന